അതെ അശ്വതി ബാങ്ക് ആണ് ആ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ലോൺ ആണ് വേണ്ടത് ആ എന്ത് ബിസിനസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ആ ഓക്കെ പത്ത് ലക്ഷം നമുക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റും കുറച്ച് പ്രൊസീജ്യേഴ്സ് ഉണ്ട് ആധാർ കാർഡ് പാൻ കാർഡ് ഒക്കെയായിട്ട് ബാങ്കിലേക്ക് വരണം നാളെ ആ പാൻ കാർഡ് നിർബന്ധമാണ് പാൻ കാർഡ് നിങ്ങൾ അക്ഷയ പോയാൽ മതി അപ്പം അക്ഷയ പോയിട്ടിങ്ങനെ പർ പാൻ കാർഡ് ഇല്ല പറഞ്ഞാൽ അവർ ഒരാഴ്ച്ച ഗ്യാപ്പിൽ സെറ്റ് ആക്കി തരും പാൻ കാർഡ് എടുക്കാൻ ചെറിയ എമൗണ്ടേ ഉളളൂ ഹൺഡ്രഡ് റുപ്പീസ് നമുക്ക് ഈ ലോൺ പത്ത് ലക്ഷം കിട്ടും അപ്പോൾ ഇല്ലേ നിങ്ങൾക്ക് എത്ര കൊല്ലം കൊണ്ടിത് അടച്ച് തീർക്കാൻ പറ്റുക ഒരു മന്ത്ലി ടെൻ തൗസൻഡ് വരും ഇൻട്രസ്റ്റ് രണ്ട് ശതമാനം ആണ് ഇൻട്രസ്റ്റ് പത്ത് ലക്ഷമെന്നുള്ളത് ചിലപ്പോൾ പതിനൊന്ന് ലക്ഷം പന്ത്രണ്ട് ലക്ഷം

അല്ല അത് കുഴപ്പമില്ല അത് രണ്ടും ഒന്നാവില്ല ഇല്ല അത് കുഴപ്പമില്ല ഇത് ബിസിനസ് ലോൺ അല്ലേ അത് തമ്മിൽ ഇതൊരു ബന്ധമില്ല അത് കാരണം കുഴപ്പമില്ല ഇല്ല അ അതിന്റെ ആവശ്യമില്ല നിങ്ങൾക്കിപ്പം മാസം കിട്ടുന്ന ഒരു വരുമാനം ഉണ്ടോ അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് കൊണ്ടുവന്നാൽ മ അപ്പം അത് കൊണ്ടുവന്നാൽ നമുക്കിതെല്ലാം സെറ്റ് ആക്കാം അതാണേ നമുക്കിതിന് ആവശ്യമുള്ളൂ അതേപോലെ തന്നെ പാൻ കാർഡും ആധാർ കാർഡും പാൻ കാർഡ് നിങ്ങൾക്ക് എന്നാണ് കിട്ടുന്നത് പിറ്റേ ദിവസം തന്നെ ഇങ്ങോട്ട് പോരുക പത്ത് ലക്ഷം രൂപയുടെ അപ്പ്രൂവ് ചെയ്തുതരാം ആ അത് കുഴപ്പമില്ല നമുക്ക് ടെൻ തൗസൻഡ് അല്ലേ ഇപ്പോൾ അടവ് വരുന്നുള്ളൂ അപ്പം ടെൻ തൗസൻഡ് ഒക്കെ കുഴപ്പമില്ല ആ പാൻ കാർഡ് ഇമ്പോർട്ടൻറ് ആണ് അത് എന്തായാലും അക്ഷയയിൽ പോയിട്ട് നിങ്ങൾ കൊണ്ടുവരണം ആ ആർക്കായാലും പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷത്തിൻ്റെ ലോൺ ഒക്കെ അവൈലബിൾ ആണ് പക്ഷേ നമ്മൾ ഈ പ പതിനായിരം എന്നുള്ള കുറച്ചുകൂടെ കൂടും അപ്പോൾ ഇൻട്രസ്റ്റും കൂടും ഇൻട്രസ്റ്റ് ടെൻ ടെൻ പെർസൻറ്റേജ് ആ അത്രയും കൂടും അപ്പം കുറച്ച് കൂടുതൽ എമൗണ്ട് നിങ്ങൾ പത്ത് ലക്ഷമാണെങ്കിൽ ഓക്കെ ആണ് ടൂ തൗ രണ്ടെണ്ണം ഒരേ പോലെ വരും

ആ ഓക്കെ അത് മതി പാൻ കാർഡ് പോര്